എനിക്ക് ശാസ്ത്രീയ സംഗീതത്തെക്കാൾ കൂടുതൽ സമകാലിക സ സമകാലീന സംഗീതം കേൾക്കാനാണ് താൽപ്പര്യം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോള് നടക്കുന്ന ഓരോ ലൈവായിട്ട് ഇപ്പോള് നടക്കുന്ന കാര്യങ്ങളും അതിനേക്കുറിച്ചുള്ളതെല്ലാം അതിനകത്തു വരും ശാസ്ത്രീയ സംഗീതം അതുപോലെ എഴുതി അതിന്റെ ബുദ്ധിമുട്ട് അതിന്റെ വരികളിലൂടെ ഓരോ വരികളിലൂടെ ഇഴകളിലൂടെ ചേർന്നാലേ അതിനെ മനസ്സിലാക്കാൻ പറ്റൂ സമകാലിക സന്ദേശമാകുമ്പഴ്ത്തേക്കും കോമഡിയാണേലും അല്ലാതെ അങ്ങനെയുള്ള സംഗീതങ്ങൾ നമുക്ക് കേൾക്കാൻ താൽപ്പര്യമാണ് അതിനേ പെട്ടെന്ന് പിടിക്കാനും നമുക്ക് മനസ്സിൽക്കൊണ്ട് നടക്കാനും അതിനേക്കുറിച്ച് മൂളിക്കൊണ്ട് നടക്കാനും വളരെയേറെ താൽപ്പര്യമാണ് സമകാലിക സംഗീതം ത്തിൽ സിനിമാഗാനങ്ങളോടും ക്രിസ്തീയ സംഗീതങ്ങളോടും ക്രിസ്തീയ പാട്ടിനോ പാട്ടിനോടുമാണ് എനിക്ക് കൂടുതൽ താൽപ്പര്യം ദൈവത്തിന്റെ ഗാനങ്ങളോടാണ് ഞാനേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ദൈവിക ദൈവത്തിന്റെ പാട്ടുകളും അതുമൊക്കെയാണ് അപ്പോള് അതുമെല്ലാം കേട്ട് അതിനേക്കുറിച്ച് പാട്ട് പാടിയും അതിനേക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചുമൊരു ദിവസം നടക്കുന്നത് ഏറ്റവും നല്ല സുഖമുള്ള കാര്യമാണ് പിന്നെ സിനിമാഗാനങ്ങൾ സിനിമാ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിപ്പൊരൂ സീൻ കണ്ട് നമ്മളതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും ചിലപ്പോള് ഓർക്കുന്ന സമയത്ത് പാടാറുണ്ട് പാട്ട് ഏതാണേലും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് പാടാനും അത് കേൾക്കാനും അത് കേട്ടോണ്ടിരിക്കാനും ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കാനും പാട്ടിനോട് വളരെ താൽപ്പര്യമാണ് പാട്ട് പാടുന്ന പണ്ടത്തെ യേശുദാസിന്റെയും ജാനകി അമ്മയുടെയുമൊക്കെ പാട്ടുകള് കേള്ക്കാനായിട്ട് വളരെയേറെ താൽപ്പര്യമാണ് സുജാത യേശുദാസ് ജാനകി പീ ലീല സ് സു അങ്ങനെയുള്ളവരുടെയെല്ലാം പാട്ടുകള് വളരെയേറെ ആസ്വ ആസ്വദിക്കുമായിരുന്നു ടി വിയെക്കാട്ടിലും കൂടുതല് ഞങ് പാട്ടുകളാണ് ആസ്വദിച്ചോണ്ടിരുന്നത് അന്നേരോം പോയിട്ട് വന്നേച്ച് നമ്മളെവിടേലുമെന്തേലും ജോലി ചെയ്യുകയോ അല്ലെങ്കില് നമ്മളലക്കുകയോ വല്ലോ പണിയൊക്കെ ചെയ്യുമ്പോൾ പാട്ട് വച്ച് കേട്ടോണ്ട് അന്ന് നടന്ന പാട്ടുകളോ ഏതാണേലും നമ്മള് കേട്ട് ആ ജോലി ചെയ്യുമ്പോൾ അതൊരു സന്തോഷവുമാണ് പാട്ടുകേട്ടോണ്ടെയ്ത് പറഞ്ഞ വേറൊരു ചിന്തകളും പാട്ട്പാടി കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെയുള്ള ചിന്തകളൊന്നും അധികമായിട്ട് കടന്ന് വരാറില്ല അപ്പോള് നമ്മള് ജോലി നമ്മള് കമ്പ്ലീറ്റായിട്ട് ചെയ്യേഞ്ചെയ്യും നമുക്ക് നല്ലൊരു റിലാക്സുങ്കിട്ടും അപ്പോള് പാട്ടിന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണവും നല്ല പാട്ടിനെ